വിദ്യ പ്രഭാകർ എന്നു പറഞ്ഞ ഒരു വ്യക്തി ഞങ്ങളുടെ ഈ വയനാട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി വളരേ കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്നതാണ് അതേപോലെത്തന്നെ വളരേ കുടുംബമായാലും ഭയങ്കര മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു പക്ഷേ പുള്ളിക്കാരി വിദ്യാഭ്യാസത്തിലൂടെ തൻ്റെ കഴിവുകൾ പുറത്തെടുത്ത് ഇപ്പോൾ ഞങ്ങളുടെ വയനാട്ടിൽ ഒരു കലക്ടറായി മാറിയിരുന്നു ഇപ്പോൾ കളക്ടർ വേറെയാണ് പക്ഷേ എന്നാലും പുള്ളിക്കാരി തന്നെ പുള്ളിക്കാരി തന്നെ നമുക്കൊരു മോട്ടിവേഷണൽ ആയി മാറുകയാണ് എന്താണെന്നു ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ ശ്രമിച്ചാൽ എന്തും സാധിക്കും അതുപോലെ ആ ദിവ്യ പ്രഭാകർ എന്നു പറഞ്ഞ വ്യക്തിക്ക് അത്ര കഷ്ടപ്പാടുകളിൽ നിന്നും ഉറക്കമില്ലാതെ പഠിച്ച് ആ പുള്ളി അദ്ദേഹം ആ പുള്ളിക്കാരി ഒരു കലക്ടറായി അപ്പോൾ ആ പുള്ളിക്കാരി നമുക്കൊരു മോട്ടിവേഷണൽ ആയി മാറിയിരിക്കുകയാണ്